മലയാള ഭാഷയെന്ന് പറയുന്നത് പ്രധാമായിട്ട് നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ തമിഴ് സംസ്കൃതം എന്നീ ഭാഷകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഭാഷയാണ് മലയാളം പണ്ട് നമ്മളാലോചിക്കുമ്പോൾ സംസ്കൃത ഭാഷയും പിന്നെ ദ്രാവിഡൻമാരൊക്ക ഉപയോഗിച്ചിരുന്ന തമിഴും ഭാഷയൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ചോളരാജവംശം അവരൊക്കെ അധികവും തമിഴ് ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ രണ്ട് ഭാഷയിൽ നിന്നും ഏതോ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞ് അത് രണ്ടും കൂടി സംസാരിച്ച് പോയൊരു രീതിയിലായി വന്നു മലയാളമായി അങ്ങനെ ഒരു ഭാഷാസംസ്കാരം രൂപപ്പെട്ടു നമ്മള് വേറെ ഭാഷകള് നോക്കുകയാണെങ്കിൽ ഒരു ഭാഷയെന്ന് പറയണത് നമ്മുക്ക് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സംസ്കാരം ഒരു ഭാഷയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടാകണം അപ്പോൾ അതുപോലെ മലയാളഭാഷയെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് മലയാള നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം തന്നെ ഒരു കേരളീയരുടെ ഒരു സംസ്കാരം തന്നെ ബാക്കി ഭാഷകളെ വച്ച് നോക്കുമ്പോൾ കുറേ കടം മേടിച്ചപോലെ അല്ലെങ്കിൽ കുറേ ഭാഷകളുടെ ഒരു മൊത്തം ഉണ്ടായ ഒരു സംസ്കാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇപ്പോൾ നമ്മള് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ തമിഴ് ആയിട്ട് നമുക്ക് ബന്ധം ഉണ്ട് സംസ്കൃതവുമായിട്ട് ബന്ധം ഉണ്ട് ഇപ്പോൾ വേറെ പുറം രാജ്യങ്ങലത്തെ ഭാഷകളുമായിട്ട് ബന്ധം ഉണ്ട് എന്നാൽ പക്ഷെ നമ്മുടെ ഭാഷ വേറിട്ട ഭാഷാതന്നെയാണ് മലയാള ഭാഷ ഇപ്പോൾ ഇതിന്റെ നമ്മളെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ സംസ്കാരം ഇതില് ബന്ധപ്പെട്ട് നോക്കുകയാണെന്ന് പറയുമ്പോൾ കുറേ കുറേ കാര്യങ്ങള് നമുക്ക് അവരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മള് വേറെ ആൾക്കാരുമായിട്ട് തമിഴന്മാരുമായിട്ട് ഈ തമിഴന്മാരെന്നു പറയുമ്പോൾ നമ്മളെ തമിഴ്നാട്ടില് ജീവിക്കുന്ന ആൾക്കാര് തമിഴ്നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുതന്നെ തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന ആൾക്കാര് അല്ലെങ്കിൽ അവിടെ വേരുകളുള്ള ആൾക്കാര് അങ്ങനെയായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുമായിട്ട് നല്ല ബന്ധം അവര് അവരും മലയാളികളും തമ്മിൽ നല്ല സാമ്യത സാമ്യതയും കാര്യങ്ങളൊക്കെയുണ്ട് അതിപ്പോൾ സംസ്കാരത്തിന്റെ കാര്യത്തിലായാലും ഇപ്പോൾ രാവിലെ അവിടെ നോക്കുകയാണെന്ന് പറയുമ്പോൾ രാവിലേ അവരു കോലം ഇപ്പോൾ രാവിലെ എണീച്ചു വീടിന്റെ മുറ്റവും കാര്യങ്ങളൊക്കെ അടിച്ചു വാരി അവിടെ കോലം ഇടുക അങ്ങനത്തെ കാര്യങ്ങള് അങ്ങനെ നോക്കുകയാണ് പറയുമ്പോൾ അങ്ങനെ നമ്മളും വീട്ടില് അതുപോലെയാണ് രാവിലെ എണീച്ചു അടിച്ചുവാരി വൃത്തിയാക്കി കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടേ നമ്മള് അടുക്കളയിൽ കയറുകയുള്ളൂ അതുപോലെയാണ് അവരും അപ്പോൾ അങ്ങനെ എന്ത് എടുത്ത് നോക്കുകയാണെങ്കിലും അതിന് നമ്മളും അവരും തമ്മില് ഈക്വലായിട്ട് തുല്യമായ ഒരു ബന്ധം കാര്യങ്ങളൊക്കെയുണ്ട്